ഞാനൊരു ഷോപ്പിലെ അക്കൗണ്ട്സില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു അപ്പോൾ ഒരുപാട് ഇപ്പോൾ സ്റ്റോക്കൊക്കെ എടുക്കുമ്പം നമ്മള് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാന് പിന്നെ ഒരു ഒരു മാസത്തെ സ്റ്റോക്കെടുത്ത് കഴിഞ്ഞ് ബാലൻസ് ഷീറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ എനിക്ക് ബാലൻസ് ഷീറ്റ് റ്റാലി ആവാത്ത ആ ഒരു സമയത്ത് ഞാൻ അപ്പം ഞാന് ചെറുതായിരുന്നു വർക്കിലേക്ക് കയറിയ ആ സമയത്ത് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉള്ളൊരു സമയം തന്നെയായിരുന്നു അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് റ്റാലി ആവാത്ത ഒരു സമയം ആയപ്പോൾ ഞാന് ക്യാഷ് ബുക്കില് ചെറിയൊരു മാറ്റം വരുത്തി അപ്പം എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ മാറ്റം വരുത്തിയാലത് പ്രശ്നം ആവും അങ്ങനൊന്നും ഞാന് ചിന്തിച്ചില്ല ബാലൻസ് ഷീറ്റ് റ്റാലി ആവണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ഞാന് ക്യാഷ് ബുക്കില് ചെറിയൊരു മാറ്റം വരുത്തി ബാലൻസ് ഷീറ്റ് റ്റാലി ആക്കി അത് പിന്നീട് എൻ്റെ മുകളിലുള്ള ആള് കണ്ട് പിടിക്കുകയും പിന്നെ എന്നെ ഒന്ന് വഴക്കു പറയുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ഞാൻ കൈകാര്യം ചെയ്തെന്ന് പറയുമ്പം ഞാന് പറഞ്ഞ് അവരോടു പറഞ്ഞ് അപ്പം ചെറിയ പേടിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് അപ്പം അവരും എന്നെ പറഞ്ഞു മനസിലാക്കി സാരമില്ല ആദ്യായിട്ടാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് ഒന്ന് എൻ്റെ ഒരു മൈൻഡ് ഒന്ന് ശരിയായി